ഞാൻ മേടിച്ചത് ഒരു ബോട്ടിൻ്റെ ഹെഡ്ഫോൺ ആണ് ഞാൻ അതിനൊരു ഫോർ പോയിന്റ് ഫൈവ് റേറ്റിംഗ് കൊടുക്കും അഞ്ചില് ഒരു വളരെ നല്ലൊരു ഹെഡ് ഫോൺ തന്നെയാണത് നല്ല ബാറ്ററി ബാക്കപ്പ് ഉണ്ട് നല്ല എഫ്ഫക്റ്റ്ണ്ട് എന്താ ഐ ലൈക് ഇറ്റ് അത്രതന്നെ വളരെ നല്ലൊരു ഇയർഫോൺ തന്നെയായിരുന്നു